ആ ഹലോ

ഞാൻ പാലക്കാടിൽ നിന്ന് വരുവായിരുന്നു വിളിക്കുവായിരുന്നു വയനാട്ടിലെ ട്രഡീഷണൽ ഫുഡ്സിനെപ്പറ്റി അറിയാൻ വേണ്ടി അല്ല ഫംഗ്ഷൻ അല്ല ഞങ്ങൾ ഒരു ട്രാവലിന്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു നാലഞ്ച് പേർ കാണും ടു ഡേയ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ വരും

ആ അഞ്ച് അഞ്ചാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും ഓ അന്നത്തേക്ക് മതി ഞങ്ങൾ ഒരാഴ്ച മാക്സിമം

അവിടെ സൗകര്യമുണ്ടോ

അവിടെ ഫീസ് ഫീസ് എത്രയാണ് വരുന്നത് റെൻറ്റ് എത്രയാണ് വരുന്നത്

ആ എന്നാൽ ശരി ആ എന്നാൽ ഓക്കേ ആ വേണം ഞാൻ വിളിക്കാം എന്നാൽ ശരി അവിടെ എത്തുമ്പോൾ വിളിക്കാം